എനിക്ക് ഒരു സഹോദരൻ ഉണ്ട് ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ സാമ്യങ്ങൾ വളരെ ഏറെ കുറവാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ അച്ഛനെയും അമ്മനെയും വളരെ ഏറെ ഇഷ്ടമാണ് പിന്നെ ബ്ലൂ കളർ ആണ് ഇഷ്ടം ആ അങ്ങനെ ചില സാമ്യങ്ങൾ മാത്രമേ ഞങ്ങൾ തമ്മിൽ ഉള്ളൂ എന്നാൽ വ്യത്യസ്തങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ സഹോദരന് ട്രാവൽ ചെയ്യാനും പുസ്തകം വായിക്കാന് കുക്ക് ചെയ്യാൻ ഒക്കെ വളരെയേറെ ഇഷ്ടമുള്ളതാണ് എന്നാൽ എനിക്ക് ടി വി കാണുക ചിത്രം വരയ്ക്കുക ഡാൻസ് ചെയ്യുക ഇവയെല്ലാം ആണ് എനിക്കിഷ്ടം